വിദ്യാഭ്യാസത്തിൽ സാങ്കേതികവിദ്യകളുടെ ഉപയോഗം വിദ്യാർത്ഥികളെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നമുക്കറിയാം ഏതൊരു കാര്യങ്ങളും നമ്മൾ കണ്ടു പഠിക്കുന്നത് ചെയ്തു പഠിക്കുന്നതും കേട്ടു പഠിക്കുന്നതുമായിട്ട് ധാരാളം വ്യത്യാസങ്ങളുണ്ട് കാരണം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് എന്താ പറയുന്നത് നൂറ് തവണ പറഞ്ഞു പഠിച്ച് കഴി പഠിക്കുന്നത് പോലെയല്ലാ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാര്യം അത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മളത് പഠിക്കുമ്പോഴ് നമ്മളതിൽ പ്രാവീണ്യം നേടുകയാണ് ചെയ്യുന്നത് തിയറി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ അത് പ്രായോഗ്യമാകണം എന്നില്ല എന്തൊരു കാര്യവും നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്ത് ഏത് വിധത്തിലാണേലും നമുക്കതിൽ പ്രാവീണ്യം നേടണമെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ച് പഠിക്കുക തന്നെ വേണം അപ്പോൾ സാങ്കേതിക വിദ്യകൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ന്നാ അവർക്കത് വളരെയധികം പ്രയോജനപ്രദമാണ് ഇപ്പോൾ നമുക്കറിയാം ഒരു വെള്ളം തിളക്കുമ്പോൾ അത് ചൂട് ചൂടാകുന്നു ചൂടാ അത് ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമാണ് ആ വെള്ളം തിളപ്പിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ വെള്ളം അതുപോലെത്തന്നെ അതിന് വേണ്ട പാത്രം തിയ്യ് ഇതെല്ലാം അതിന് വേണ്ട ഉപകരണങ്ങളാണ് അപ്പോൾ ഏറ്റവും നിസാരമായിട്ട് നമ്മൾ പറയുമ്പോൾ അത് നമ്മളത് ചെയ്ത് കണ്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വെള്ളം തിളപ്പിച്ചത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നു അതേപോലെ അതേപോലെ ഞാൻ ഏറ്റവും നിസ്സാരമായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഏതൊരു വിദ്യകളും നമ്മൾ അതിൻ്റെ അതിൻറ്റേതായ രീതിയിൽ നമ്മൾ കണ്ടുപടി കണ്ടുപിടിക്കുന്നതല്ല ചെയ്തു പഠിക്കുമ്പോൾ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പണ്ട് കാലത്തും നമുക്കറിയാം എന്തും അതായത് ഒരു പട്ടിക പട്ടിക പഠിക്കുന്നൊരു കാലമുണ്ടായിരുന്നു ഗുണനപ്പട്ടിക അതുപോലെത്തന്നെ എന്താ സബ്ട്രാക്ഷൻ അഡീഷൻ എന്ന എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അതേപോലെ എന്ത് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പഠിക്കുന്ന ഒരു കാലമായിരുന്നു എന്നാൽ പിന്നീട് അതിന് പകരം നമ്മൾ ഓരോന്നും സിമ്പൾ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളും അതിൻറ്റേതായ പഠന ഉപകരണങ്ങളിലൂടെ സാങ്കേതിക വിദ്യകളിലൂടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയോജനം ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പഴത്തേക്ക് നമുക്കറിയാം കാലങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിസ്സാര സമയങ്ങൾ കൊണ്ട് നമുക്കത് ഹൃദിസ്ഥമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അനുഭവവേദ്യമായ കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ലോകം ഇത്ര കണ്ട് വികസനത്തിലേക്ക് വന്നു അതുപോലെത്തന്നെ ധാരാളം എന്താ പറയുന്നത് എല്ലാ വിധത്തിലും പുരോഗതിയിലേക്ക് വന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യോത്തര രീതികളോ അതല്ലായെങ്കിൽ ബൈ ഹാർട്ട് ആക്കുന്ന രീതികളോ അങ്ങനെ ഒന്നുമല്ല അതേ അതിനേക്കാളൊക്കെ ഏറ്റവും വിദ്യാർത്ഥികൾക്ക് ഇൻട്രസ്റ്റിങ് ഉണ്ടാക്കുന്നതും അതുപോലെത്തന്നെ അവരുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്നതുമായ കാര്യങ്ങൾ എപ്പോഴും സാങ്കേതിക വിദ്യകൾ കൊണ്ട് തന്നെ ഉള്ള കാര്യങ്ങളായിരിക്കും കുട്ടികൾക്കുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് ആ പഠനത്തിൽ കൂടുതൽ മുന്നേറുന്നതിനും അവരത് മറക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും എല്ലാം നമുക്ക് സാങ്കേതിക വിദ്യകൾ വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് പിന്നെ എന്ന എന്താ പറയുക നമുക്ക് ഇപ്പോഴത്തെ ഐ എ യെസ് പഠന ത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല കാരണം എല്ലാ വിധ സൗകര്യങ്ങളോടും കൂടിയ എല്ലാ സാഹചര്യങ്ങളും ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ ഇല്ലാത്തൊരു പഠനത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല എനിക്ക് തോന്നുന്നത് എത്ര ഇപ്പം ഗവൺമെൻറ്റ് തലത്തിലുള്ള സ്കൂളുകളിലാണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയൊരു പഠന രീതിയാണ് പോകുന്നത് അതുപോലെത്തന്നെ എയ്ഡഡ് മേഖലകളാകട്ടെ പ്രൈവറ്റ് മേഖലകളിപ്പോൾ വളരെ കുറവാണ് എങ്കിൽ പോലും പണ്ടത്തെ വിദ്യാഭ്യാസത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിദ്യാഭ്യാസം ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട് അതിന് ഈ സാങ്കേതിക വിദ്യകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ്